ആ അതെ അതെ അതെ ആ ആ

ഇത് എവിടെയാന്നാണ് പറഞ്ഞത് മാണിക്കുന്നോ ഉവ്വ് ആ ഇത് പ്ലാ പ്ലംബിങ്ങിന്റെ മറ്റേ ഇതിന്റെ ടാങ്കിന്റെ ലീക്കാണോ അതോ ടാപ്പിന്റെ ലീക്കാണോ ടാങ്കീന്ന് ടാപ്പിലോട്ട് ഒത്തിരി പോവുന്നുണ്ടോ അറിയോ അതോ കാ ഇറ്റിറ്റ് വീഴുന്നുള്ളോ ഇത് ലീക്കായി പോവാണ് ഓക്കേ എന്ന് എന്ന് എത്ര ദിവസമായി തുടങ്ങീട്ട് ഇത് ഓ ആ ആ ഇത് സ്കു സ്കൂള് കഴിഞ്ഞിട്ട് അകത്തോട്ട് ബൈക്കിങ് വരെ വരുവല്ലോലേ ബൈക്ക് വരാൻ ആ വീട്ടിൽ എപ്പോഴും ആളുണ്ടോ ആൾ കാണോ ഉച്ച കഴിഞ്ഞാളുണ്ട് ഞാന് ഇന്നിപ്പോൾ ഒരു വര്ക്കിലാണ് ഞാന് ഒരു വര്ക്ക് ചെയ്തോണ്ടിരിക്കയാണ് ഞാനിന്ന് നേരം ഞാന് നോക്കട്ടെ ഇന്ന് തീരുവാണെങ്കിൽ ഇന്നെന്റെ വര്ക്ക് നേരത്തെ തീരുവാണെങ്കില് ഇന്ന് തന്നെ വരാം അല്ലെങ്കിൽ നാളെ രാവിലെ എത്തിക്കോളാം അപ്പം ഈ ഇതിന്റെ സാധനങ്ങള് സാധനങ്ങൾ അവിടുണ്ടോ ചേച്ചി വാങ്ങിക്കോ അതോ ഞാൻ വാങ്ങിച്ചോണ്ട് വരണോ അതീ വാങ്ങിക്കുമ്പോഴത്തേക്കും പല ടൈപ്പുണ്ട് ലോക്കല് സാധനമുണ്ട് കമ്പനി സാധനമുണ്ട് ഏതാണ് വാങ്ങിക്കേണ്ടത് കമ്പനി സാധനത്തിനു വില കൂടുതലായിരിക്കും നല്ല സാധനം അപ്പോൾ എന്റെ കൂടെ ഒരാളൂടെ കാണും ഞങ്ങള് രണ്ട് പേരാണ് വരുന്നത് അത് ഞാൻ വന്ന് നോക്കീട്ട് പറയാം എത്ര സമയം ഉണ്ടെന്നുള്ള നോക്കീട്ട് പറയാം രണ്ട് പേരുണ്ടെ രണ്ട് പേരുടെ പൈസ കൊടുക്കണം അപ്പോൾ കടേന്നു ഞാൻ വാങ്ങിച്ചോണ്ട് പോരാം അപ്പോൾ നാളെ രാവിലെ ഇന്ന് വരാന് നോക്കാം ഇന്ന് തീരുവാണെൽ ഇന്ന് തന്നെ വരാം അല്ലെങ്കിൽ നാളെ രാവിലെ എത്തും

ഇന്ന് വെള്ളം വരുന്ന ദിവസമാണ് ഓക്കെ ഓക്കെ നോക്കട്ടെ അത് ഇത് സ്കൂള് കഴിഞ്ഞ് എടത്തോട്ട് കിടക്കുന്ന വഴി കയറിയിട്ട് വലത്തു വശമായിട്ട് വരുമെന്നല്ലേ പറഞ്ഞത്

ആ ര രണ്ട് രണ്ട് പേര് വരുമ്പോൾ അവരുടെ പൈസ ആവുവേ അത് കൊടുക്കണേ ഇന്ന് ഈ ഞാൻ ഇപ്പോൾ ഉള്ള പരിപാടി നിര്ത്തിയിട്ടാ പോരുന്നത് പരിപാടി ഇട്ടിട്ടാണ് പോരുന്നത് അത് ഞാന് നോക്കിയിട്ട് ടാങ്കിന് ടാങ്കിന് പ്രശ്നോന്നൂല്ലല്ലോ ടാങ്കിന് ടാ ടാങ്കിന്ന് വെള്ളം വീഴുന്നുണ്ടോ ഇല്ല വീഴ് പൈപ്പിലോട്ടുള്ള കണക്ഷന് ഒത്തിരി ഒത്തിരി വീഴുന്നുണ്ടെന്നാണോ പറഞ്ഞത് അതോ പിന്നെ ഒട്ടിച്ചാൽ വല്ലോം മതിയായിരിക്കുമോ അതോ പൈപ്പ് മാറ്റേണ്ടി വരുമോ ഓക്കെ എന്തായാലും എന്തായാലും ഞാന് വന്ന് നോക്കാം വന്ന് നോക്കാം ഇന്ന് മൂന്ന് മണിക്ക് ശേഷം അല്ലേ ഓക്കെ ആ അത് ചാര്ജ് ഇരുന്നൂറ് രൂപ പിന്നെ പൈപ്പ് മേടിക്കുന്നതിന്റെ ആ എന്നാൽ ശരി ഞാൻ വന്നോളാം ഈ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോലേ ഓക്കേ ശരി താങ്ക് യൂ